ആ ഞാന് എനിക്ക് ഈ ചെടികളാണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറിയാണെങ്കിലും അത് എപ്പോള് നടണം എങ്ങനെ നടണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു പ്രത്യേക ഒരു വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് കാരണം പച്ചക്കറികളാധികളും അധികവും ഞാന് ഈ മഴക്കാലം അടുപ്പിച്ചാണ് നടുക അല്ലെങ്കില് ജലം അതായത് വെള്ളം ലഭ്യമാവുന്ന എപ്പഴാണോ ആ സമയത്താണ് അതായത് നല്ല വേനലാവണ സമയത്ത് ഞാന് പച്ചക്കറികളൊന്നും നടാറില്ല പിന്നെ അതുപോലെ തന്നെ ഞാന് നടുന്നത് തന്നെ ഈ മുളക് പിന്നെ അതുപോലെ തന്നെ അല്ലാത്ത ഈ ചീര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വേനലാണെങ്കിൽ നടും കാരണം എന്താച്ചാല് എനിക്ക് അതാത് ദിവസങ്ങളിൽ ഈ പാത്രം കഴുകിയ വെള്ളമൊക്കെ ഞാൻ അതിന് ഒഴിച്ച് കൊടുക്കും പക്ഷെ അല്ലാത്ത പച്ചക്കറികൾ ഒന്നും ഞാന് ഈ വേനൽ കാലത്തങ്ങനെ നടാറില്ല പിന്നെ മഴക്കാലം അടുപ്പിച്ചാണ് ഞാന് ഈ പച്ചക്കറികളൊക്കെ നടുന്നത് പിന്നെ ചെടികളാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കാലം ഒന്നും ഞാൻ നോക്കാറില്ല സമയം ഞാൻ നോക്കും കാരണം ഒന്നുങ്കില് ഈ വെയില് സമയത്ത് ഞാൻ നടാറില്ല അതിന് ഇപ്പോള് രാവിലെ രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം വൈകുന്നേരങ്ങളിലാണ് ഞാൻ കൂടുതൽ ചെടികൾ നടുന്നത് പിന്നെ അതേപോലെ തന്നെ അത് എങ്ങനെ നടണമെന്നുള്ളത് അധികം ചെടികളാണെങ്കിൽ ഞാന് ചെടിച്ചട്ടിയിലാണ് നടുക പിന്നെ അതേപോലെ മൺ കവറില് കവറില് മണ്ണ് നിറച്ചിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ വളം എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാധാരണ പച്ചക്കറികള് നടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോള് ഏറ്റവും കൂടുതല് ഞാൻ നടുന്നത് ചെടികളാണെങ്കില് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പത്തണി മുല്ല ടേബിള് റോസ് അത് ഞാന് അതിനും സമയം കാലമൊന്നും നോക്കാറില്ല അത് എപ്പഴാണ് എപ്പഴാണെങ്കിലും നടാറുണ്ട് കാരണം എപ്പഴാണ് കിട്ടിയത് അത് വാടുന്നതിനു മുമ്പ് തന്നെ നടാറുണ്ട് പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിക്കലാണ് ഞാൻ ചെയ്യാറുള്ളത്